എടാ ഞാനപ്പോൾ ഈ ഒര് വെക്കേഷനൊക്കെ വരുന്നുണ്ടല്ലൊ അപ്പോൾ ഒന്ന് കാശ്മീരിലേക്ക് പോകാന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ ബൈ റോഡ് വഴി പോകുന്നില്ല എന്തായാലും ഒരു ഫ്ലൈറ്റ് വഴി പോകാമല്ലോ എന്നൊക്കെ ആണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം നമുക്ക് ഇവിടുന്ന് ഈ ചെന്നൈന്ന് റ്റു കാശ്മീർ വരെ നോക്കുമ്പോൾ ഏകദേശം എക്സ്പെൻസ് എത്രയാകും ഫ്ലൈറ്റ് ടിക്കറ്റിന് എക്സ്പെൻസ് എത്രയാകും എന്ന് വല്ല പിടുത്തമുണ്ടോ അങ്ങനാണെങ്കില് ഏകദേശം എത്ര ഒക്കെ നോക്കിയിട്ട് അങ്ങനെ ബുക്ക് ചെയ്ത് പോകാമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഫ്ലൈറ്റിൽ പോകാമെന്ന് പക്ഷേ ഇപ്പം ബൈ റോഡ് പോകുവാണെങ്കിൽ വെച്ചിട്ടുണ്ടേൽ ടൈം എടുക്കും അതിലും ഭേദം ഫ്ലൈറ്റിലാണേൽ കുറച്ച് എക്സ്പെൻസ് ആയാൽ തന്നെ നമുക്ക് ടൈം അത്രയും കിട്ടും ടൈം മാനേജ് ചെയ്യാൻ പറ്റും പെട്ടെന്നെത്തും അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ അപ്പോൾ ചെന്നൈയിൽ നിന്ന് കാശ്മീരിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കണം പിന്നെ ആ കുഴപ്പമില്ല ഇതാണേപ്പിന്നെ ഫ്ലൈറ്റിൽ പോകുവാണേൽ കാര്യങ്ങൾ കുറച്ച് എളുപ്പമാകും ഇപ്പോൾ നിൻറ്റൊരഭിപ്രായം വെച്ച് നോക്കുമ്പോൾ ഏതാ ഫ്ലൈറ്റിൽ പോകുന്നതല്ലെ കുറച്ചും കൂടെ ബെറ്റർ ഉണ്ടാവുക നിനക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ ആണെങ്കിൽ ഈ വെക്കേഷൻ ഫ്ലൈറ്റിലൊക്കെ പോയി ഫ്ലൈറ്റിലും കയറാം മക്കൾക്ക് മക്കൾക്കൊന്നും ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല അപ്പം മക്കൾക്കായാലും ഫ്ലൈറ്റിലൊക്കെ ഒന്ന് കയറി എഞ്ചോയ് ചെയ്യാം നമുക്കും കയറാം ഇതാണല്ലൊ നല്ലത് ചെന്നൈ റ്റു കാശ്മീര് വരേ ഫ്ളൈറ്റിലും പോകാം ഇപ്പം റോഡ് വഴി പോകുന്നതിലും കുറച്ചും കൂടി ബെറ്റർ തോന്നുന്നത് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ പോകുന്നതായിരിക്കും എക്സ്പ്പെൻസായാലും കുറച്ച് കംഫർട്ട് ആയിട്ട് പോയിട്ട് മറ്റേത് ട്രാഫിക്കും കാര്യങ്ങളൊക്കെയായി